കേരളത്തിൽ ഇപ്പം കൊച്ചിയിലൊക്കെ കരോക്കെ ബാറുകള്ണ്ട് ആലപ്പുഴ ബീച്ച് കുമരകം ബീച്ച് റിസോർട്ടൊക്കെയുള്ള അവിടെയൊക്കെ പാർ അപ്പം നിശാപാർട്ടികളും എല്ലാ പാർട്ടികളും നടക്കാറുണ്ട് ചെറായി ബീച്ച് മൂന്നാർ ഇതൊക്കെ വിനോദസഞ്ചാരികൾക്ക് പാട്ടുപാടാനും ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ തന്നെയാണ് കൊച്ചി തന്നെയാണ് കേരളത്തിൻ്റെ മെയിൻ ആയിട്ട് ടൂറിസ്റ്റ് സ്പോർട്